ചേട്ടാ ഞാൻ ഇന്നലെ ഇവിടെന്ന് ഒരു ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓഡറെയ്യാൻ അതെനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ അത് പക്ഷേ സമയത്ത് എത്തിച്ചു തന്നാലും നിങ്ങള് എത്തിച്ചു തന്നത് വളരെ മോശം രീതിയിലായിരുന്നു അത് പ്യാക്ക് ചെയ്തതൊന്നും തീരെ ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാല് അത് ഇവിടെ എത്തിയിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പഴേ അതിൽ കണ്ടത് എന്താന്ന് വെച്ചാ ഇതൊക്കെ പുറത്ത് പോയിരിക്കയായിരുന്നു പുറത്ത് മൊത്തം ചിന്തി ആകെ മോശമായ ഒരു അവസ്ഥയിലാണ് എനിക്കത് കണ്ടത് എനിക്ക് അതിപ്പോൾ എനിക്കിനി അത് യൂസെയ്യാൻ പറ്റാത്ത കഴിക്കാനൊന്നും പറ്റാത്ത രീതി മൊത്തം പോയി അതിലൊക്കെ കവറൊക്കെ പൊട്ടി അതിനുള്ളൊക്കെ പൊടിയൊക്കെ കേറിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിനി ഇപ്പോൾ അത് ഇപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ചോദിക്കണേ എന്താന്ന് വെച്ചാൽ അതെനിക്ക് ഇപ്പോൾ തിരിച്ചു തരാൻ എന്താണിപ്പോൾ വഴി അതിനിനി വല്ല പോളിസി റിട്ടേൺ ചെയ്യാം പറ്റുമൊ റിട്ടേൺ ചെയ്താൽ നിങ്ങളത് സ്വീകരിക്കുമോ എന്നറിയാൻ വേണ്ടീട്ട് വിളിച്ചതാണേ അപ്പോൾ അതിൻ്റെ റിട്ടേൺ പോളിസിയെ കുറിച്ചിട്ട് എനിക്കൊന്നു പറഞ്ഞു തന്നാ നന്നായിണ്ടാവും വളരെ മോശം പാക്കിംഗ് ആയിരുന്നു കാരണം അതുകൊണ്ടാണ് ഞാൻ റിട്ടണടിക്കാൻ തീരുമാനിച്ചത്